ഒന്ന് ഇരുപത്തി മൂന്ന് ആയിരത്തൊള്ളായിരത്തി അറുപത്തി എട്ട് ഇരുപത്തിയഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തിഅറുപത്തി ഒമ്പത് പന്ത്രണ്ട് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിആറ് അഞ്ച് പതിനാല് പതിനാല് അഞ്ച് ആയിരത്തിത്തൊള്ളായിരത്തി എഴു എഴുപത്തിയൊന്ന് ഇരുപത്തിനാല് നാല് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തിരണ്ട്